ചില സമയങ്ങളിൽ സർക്കാർ നടത്തുന്ന ഓരോ ഇപ്പോൾ ചക്ക ചക്ക ചക്കേന്റെ സമയങ്ങളിലൊക്കെ ടൗൺ ഹാളിലൊക്കെ ചക്ക ചക്കേനെക്കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലം അതുപോലെ ഒരു സംരംഭം പോലെ സർക്കാരിന്റെ വക ഒരു ഒരു ടീം ഉണ്ടാവും ഒരു കുടുംബശ്രീ ആക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സംരംഭം പോലെ അപ്പോൾ ചക്ക ഒരു എക്സിബിഷൻ പോലെ അപ്പോൾ അവിടുന്ന് നമുക്ക് അവിടെങ്ങനെ ഓരോ ചക്ക പപ്പടം ചക്ക വറുത്തത് ചക്ക പുഴുങ്ങിയത് ചക്കത്തോരൻ ചക്കക്കുരുവിനെക്കൊണ്ടും ഒരുപാട് വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് എക്സിബിഷൻ പോലെ അവിടെ നമുക്ക് വാങ്ങാൻ അതൊരു സംരംഭം പോലെ സർക്കാരിന്റെ ഇതില് വരുന്ന പക്ഷേ അതൊരു നല്ലൊരു നല്ലൊരു നയങ്ങളിൽപ്പെട്ടതാണ് അതുപോലെത്തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളും നല്ല രീതിയിൽ തന്നെ ഈ നമ്മുടെ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽത്തന്നെ മുന്നേറുന്നൊരു കാര്യം തന്നെയാണ് വീടും പരിസരമൊക്കെ വൃത്തിയിൽ കൊണ്ടുപോകാനും അതുപോലെ ചാലെടുക്കേണ്ട സ്ഥലത്ത് ചാലെടുക്കാനും ഒക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതി കാരണം ഒരു തൊഴിൽ മേഖലയാണ് വീട്ടിലിരിക്കുന്നവർക്കൊരു തൊഴിൽ മേഖലയാണ് അതുപോലെ വീടും പരിസരവും വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കാനും കഴിയും അതുപോലെത്തന്നെ ഈ പച്ചക്കറി കൃഷി പച്ചക്കറി വീട്ടിൽ നിന്നും ഉണ്ടാക്കി ജൈവവളം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ഉണ്ടാക്കുകയും അത് ഈ ഗാന്ധി പാർക്ക് അവിടെയൊക്കെ പോയി കൊണ്ടുവന്ന് ഒരു വിൽക്കുന്ന ഒരു പദ്ധതി പോലെ അതും സർക്കാർ കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന വീട്ടിൽ തന്നെ കുടുംബശ്രീയിലുള്ള ആൾക്കാർക്ക് പച്ചക്കറി നൽകുകയും പച്ചക്കറി പച്ചക്കറിയുടെ വിത്തുകൾ നൽകുകയും അല്ലെങ്കിൽ അതിന്റെ ചെടി നൽകുകയും അത് നട്ട് ഉണ്ടാക്കുകയും അതുപോലെത്തന്നെ അവരുണ്ടാക്കുന്ന പച്ചക്കറി സർക്കാർ മുഖേനെത്തന്നെ വിൽക്കാനുള്ള ഒരു അവസരം കൂടെ അവർക്ക് നൽകി ഇത് നല്ലൊരു നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഈ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കാണെങ്കിലും ചേച്ചിമാർക്കാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ സമയം ചിലവാക്കാൻ പറ്റിയൊരു വഴിയും കൂടിയാണ് അതുപോലെ കയ്യിൽ കുറച്ച് പണം കിട്ടാനുള്ളൊരു അവസരം കൂടിയാണ് അവർക്ക് നൽകുന്നത്